പൂർത്തിയായ നിരവധി നെയ്ത്ത് പ്രൊജക്റ്റുകളിലെ ഒരു നിറത്തിൽ കൂടുതൽ നൂൽ ഉപയോഗിക്കാറില്ല പക്ഷെ ഒന്നിലധികം നിറങ്ങളിൽ പ്രവർത്തിക്കാൻ നിരവധി മാർഗ്ഗങ്ങളുണ്ട് ചില നൂലുകൾ വർണ്ണാഭമായി ക്രമരഹിതമായി അല്ലെങ്കിൽ ഓരോ കുറച്ച് തുന്നലുകളിലും എന്തു ചെയ്യുന്നുണ്ട് നിറം മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ സ്വയം വരച്ചുകണ്ട് കുറച്ച് വരികളിൽ മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ ചായം പൂശുന്നു കൂടുതൽ സങ്കീർണ്ണമായ സാങ്കേതിക വിദ്യയിൽ വലിയ വർണ്ണ ഫീൽഡുകൾ ഉദാഹരണത്തിന് ഇൻഡാർസിയ തിരക്കേറിയ ചെറിയ തോതിലുള്ള വർണ്ണപ്പാറ്റുകളിൽ നൽകന്നുണ്ട് ഒരേ നിറത്തിൻ്റെ ഒന്നിലധികം ഷെയ്ഡുകളിലുള്ള നൂലിനെ ഓംബ്രേ എന്നു വിളിക്കുന്നു അതേ സമയം ഒന്നിലധികം നിറങ്ങളുള്ള ഒരു നൂലിനെ ഒരു പ്രത്യേക വർണ്ണമാർഗ്ഗം എന്നു വിളിക്കാം ഉദാഹരണത്തിന് അപ്പോൾ പച്ച ചുവപ്പ് മഞ്ഞ നിറത്തിലുള്ള ഒരു നൂലിനെ അതിൻ്റെ നിർമ്മാതാവ് പാരറ്റ് കളർവേ എന്നു വിളിക്കാം ഹീദർലാൻഡ് നൂലുകളിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള ചെറിയ അളവുകളിൽ നാരുകൾ അടങ്ങിയിരിക്കും അതേസമയം ടീട് നൂലുകളിൽ വ്യത്യസ്ത നിറങ്ങളിലുള്ള നാരുകൾ കൂടുതലായിരിക്കും നമ്മള് നെയ്തെടുക്കുന്ന ആ തുന്നലുകളിലെ നിറങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കാനും അത് കാണുന്ന മാത്രയിൽ തന്നെ നമുക്കിഷ്ടപ്പെടാനും അതിൻ്റെ ഉൽപാദനം കൂടുന്നതിനും ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളക്കളർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കുറച്ച് ഭംഗിയായിരിക്കും തരുന്നുണ്ടാവുക അല്ലെങ്കിൽ കറുപ്പു കളർ മാത്രമാണെങ്കിൽ അതിൽ കുറച്ച് ഭംഗി മാത്രം തരുന്നു അതുപോലെത്തന്നെ പല നിറങ്ങളിൽ വരുമ്പോൾ അതിന് കുറച്ചുംകൂടി എടുപ്പ് വരികയും അത് കാണുന്ന ആളുകളുടെ കണ്ണുകൾക്ക് നയനങ്ങൾക്ക് കൂടുതൽ മനോഹരമാവുകയും ചെയ്യുന്നു പല നിറങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് വേറെ പല നിറങ്ങൾ ലഭിക്കുകയും നമ്മളുടെ ശരീരത്തിന് ഇപ്പോൾ എല്ലാവരുടെയും ശരീരത്തിന് ഒരേ നിറം യോജിച്ചുകൊള്ളണം എന്നില്ല ഇപ്പോൾ വെളുപ്പായിരിക്കുന്ന ആളുകൾക്ക് എല്ലാ നിറങ്ങളും യോജിക്കുമെങ്കിലും കുറച്ച് ഇരുണ്ടനിറമുള്ള ആൾക്കാർക്ക് ചില നിറങ്ങൾ അവർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ വന്നിട്ട് കുറച്ച് ഡാർക്ക് ആയത് തോന്നാറുണ്ട് അപ്പോൾ എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കളറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല കളറുകളുടെ മിക്സിലൂടെയാണ് നമുക്ക് കിട്ടുന്നുണ്ടാകാം ഇപ്പോൾ എല്ലാ കളറുകളും നമ്മളിതിൽ ഉപയോഗിക്കാറുണ്ട് ഒരേ കളറ് മാത്രമുള്ളവയും മിക്സഡായിട്ടുള്ള കളറുകളും ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിറങ്ങൾ എന്നു പറയുന്നത് കറുപ്പും ചുവപ്പുമാണ് അതേപോലെത്തന്നെ നീലയും കറുപ്പും ചേർന്നിട്ടുള്ള ആ ഒരു മിക്സഡ് പാറ്റേണും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നിറങ്ങളാണ് ബ്രൗൺ കളറും നിറമുള്ള മറ്റ് ഇഷ്ടമുള്ള മറ്റൊരു നിറമാണ് ഓരോരുത്തരുടെയും നിറങ്ങളും അവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായതുകൊണ്ടുതന്നെ നമ്മൾ നിർമ്മിക്കുമ്പോൾ എല്ലാ കളർ പാലറ്റുകളും നമ്മൾ തിരഞ്ഞെടുക്കണം എങ്കിൽ മാത്രമാണ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ സാറ്റിസ്ഫൈ ആവുകയും അവരുടെ ആ നിറം തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽക്കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ മറ്റുള്ള ആളുകൾ അതിഷ്ടപ്പെടുകയും കൂടുതൽ നെയ്ത്ത് കൂടാനും നമ്മളെ സഹായിക്കും